വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു കൃതി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു വിക്ടര് ഹ്യൂഗോയുടെ പാവങ്ങള് എന്ന നോവലില് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അത് മലയാളത്തിലേക്ക് തമി തര്ജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നത് നാലപ്പാട്ട് നാരായണമേനോന് ആയിരുന്നു അദ്ദേഹത്തിന്റെ പാവങ്ങള് എന്ന പുസ്തകം എനിക്ക് വായിക്കാന് വളരെ ഏറെ ഞാൻ കാത്തിരുന്ന ഒരു പുസ്തകമായിരുന്നു വളരെ ആഗ്രഹിച്ചിട്ട് കിട്ടിയ ഒരു പുസ്തകം ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞാന് വളരെ ആവേശത്തോടു കൂടിയായിരുന്നു അത് വായിച്ചത് അത് വായിച്ച സമയത്ത് എനിക്ക് എന്തുകൊണ്ടും എന്റെ ഹൃദയത്തെ വളരെയധികം ഏറെ സ്വധിനിച്ചിട്ടുണ്ടായിരുന്ന ഒരു പുസ്തകമായിരുന്നു പാവങ്ങളുടെ അതായത് ഒരു പട്ടിണി പട്ടിണിയില് ജീവിതം മുന്നോട്ടു കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന യാങ്ങ് വാലി യാങ്ങിന്റെ ഒരു യാങ്ങ് വാലി യാങ്ങ് എന്ന ഒരു കഥാപാത്രത്തിന്റെ ഒരു കഥ പറയുന്ന ഒരു നോവലായിരുന്നു പാവങ്ങള് എന്ന് പറയുന്നിട്ടുണ്ടായിരുന്നത് പാവങ്ങള് പലരും വിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിലും നാൽപ്പാട്ട് നാരായണമേനോന്റെ വിവർത്തനം എന്തുകൊണ്ടും അതിന്റെ ആ ഒറിജിനല് വേര്ഷന്റെ അതേ ഒരു സാമ്യത പുലര്ത്തുന്ന ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ കഥകള്ക്ക് യാതൊരു വിധ മാറ്റമോ അല്ലെങ്കില് കഥാപാത്രങ്ങള്ക്ക് മാറ്റം ഒന്നും അധികം ഒന്നുമുണ്ടായിട്ടില്ല വിവർത്തന കൃതി ആയതുകൊണ്ട് തന്നെ അതിന് ആ കഥയോട് കഥയോട് നൂറുശതമാനം നീതി പുലര്ത്തുന്ന ഒന്നും ആയിരുന്നു